ഇന്ത്യയിലെ സ്ത്രീകൾ ഇന്ന് ധാരാളം വെല്ലുകൾ വിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു അതിൽ പ്രധാനമായും പറയേണ്ടത് ഒന്ന് ജൻറ്റർ ഡിസ്ക്രിമിനേഷനാണ് അതായത് ഇപ്പോൾ സ്ത്രീകൾ അവർ അവരുടെ ജെൻ്റർ അനുസരിച്ച് വളരെയധികം ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അവരുടെ വർക്ക്പ്ലേസുകളിലും അതുപോലെത്തന്നെ സമൂഹത്തിലും അവരുടെ കൂട്ടുകുടുംബത്തിലുമെല്ലാം അവർ ഇത് ഈ ജൻറർ ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെത്തന്നെ മറ്റൊരു വെല്ലുവിളിയാണ് സ്ത്രീകൾ ഇന്ന് ധാരാളം വയലൻസും അക്രമങ്ങളുമെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നു അതിൽ അത് അതുപോലെത്തന്നെ പബ്ലിക് സേഫ്റ്റി അത് സ്ത്രീകൾക്ക് വളരെയധികം കുറവാണ് അതുപോലെത്തന്നെ മറ്റൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസം അത്ര നല്ല നിലയിൽ കിട്ടുന്നില്ല എന്നതാണ് അവർക്കുള്ള എജ്യൂക്കേഷൻ വളരെയധികം ലിമിറ്റഡാണ് അതുപോലെത്തന്നെ ഇന്ത്യയിൽ ഇന്ത്യയിലെ സ്ത്രീകൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് ചൈൽഡ് മാരേജ് എന്നുള്ളത് വളരെ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് സ്ത്രീകൾ ഇന്ത്യയിലെ പല ഭാഗത്തുള്ള സ്ത്രീകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നം അതുപോലെത്തന്നെ സ്ത്രീകൾ ക്ക് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഹെൽത്ത് ആൻഡ് ന്യൂട്രിഷൻ ഇഷ്യൂസ് ധാരാളം കണ്ടുവരുന്നു പല കുടുംബങ്ങളിലും സ്ത്രീകൾക്ക് വളരെയധികം അനിശ്ചിത അവസ്ഥയിലാണ് അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്

അതുപോലെത്തന്നെ ഇന്ത്യയിൽ ഇന്ന് ധാരാളം നൂറ്റമ്പത് അതുപോലെത്തന്നെ ഇന്ന് ഇന്ത്യയിൽ ധാരാളം സ്ത്രീകൾ ധാരാളം പങ്കുകൾ വഹിക്കുന്നുണ്ട് അതുപോലെത്തന്നെ ഇന്ന് ഇന്നത്തെ ഈ ഭരണകൂടത്തിൻ്റെ കീഴിൽ വിദ്യാഭ്യാസവും അതുപോലെത്തന്നെ തുല്യാവകാശങ്ങളും സ്ത്രീ സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെയധികം തെറ്റായൊരു ഇതാണ് ബാദമാണ് കാരണം ഇന്ന് സ്ത്രീകൾ ധാരാളം ഡിസ്ക്രിമിനേഷൻ അതുപോലെത്തന്നെ ഇനീക്വാലിറ്റിയും നേരിട്ടുകൊണ്ടിരിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ അവർ ഇന്ത്യയിൽ പരിപൂർണമായും സേഫാണ് അല്ലെങ്കിൽ സുരക്ഷിതമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല ഇതാണ് ഇന്ത്യയിലെ സ്ത്രീകളുടെ ഇന്നത്തെ അവസ്ഥ ഈ ഗവൺമെൻറിന് കീഴൽ കൂടുതൽ സേഫ്റ്റി ഉറപ്പിക്കാൻ സ്ത്രീകൾക്ക് സാധ്യമല്ല അവർ ധാരാളം വയലൻസും അക്രമങ്ങളും എല്ലാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്